ഇപ്പോൾ എൻ്റെ ഈ തൊഴിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു തൊഴിൽ തന്നെയാണ് കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഈ കൃഷി കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്ത് വരുന്നത് പക്ഷേ കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പി എൻ്റെ ഒരു വരും തലമുറ തുടരണമെന്ന് എനിക്ക് വലിയ താത്പര്യവും കാര്യങ്ങളൊന്നുമില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ കൃഷിയിൽ നിന്ന് നഷ്ടം മാത്രമല്ലാണ്ട് എനിക്ക് വലിയ ലാഭമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ലഭിച്ചിട്ടില്ല കാരണം നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഒരു വാഴ നടുകയാണെങ്കിൽ വാഴയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയുണ്ട് കാരണമെന്താണെന്നുവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരൂ മഴയുള്ള സമയത്തതൊക്കെയാണെങ്കിൽ നല്ല രീതിയിലുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ വീശിക്കഴിഞ്ഞാൽ കുലയെല്ലാം ഒടിഞ്ഞുപോകാനും അപ്പോൾ നമ്മൾക്ക് വലിയ കാശ് കാര്യങ്ങളൊന്നും കിട്ടാണ്ടിരി കിട്ടില്ല അപ്പം അതൊക്കെ എന്താ പറയുക നമ്മൾക്ക് നഷ്ടവും കാര്യങ്ങളൊക്കെയാണ് വരുത്തിവെക്കുക അങ്ങനെ പല പ്രാവശ്യവും എനിക്ക് അങ്ങനത്തെ പല അബദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് കുറേ നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം അതിനു മൊത മുതലാക്കിയ പൈസപോലും കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ വാഴവെച്ചിട്ടൊന്നും കാര്യമില്ല അതിനു നല്ല രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെ ഇട്ട്കൊടുക്കണം അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എൻ്റെ തൊഴിൽ എൻ്റെ വരും തലമുറ കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ ഒരാഗ്രഹം